നമസ്ക്കാരം ഞാനീ അവിടെ വിളിച്ചിട്ടൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ചാറൾക്ക് പോകാനായിട്ട് അപ്പോ രാവിലെ എട്ടു മണിക്ക് വരാന്ന് പറഞ്ഞ വണ്ടിയാണ് ഇപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ വണ്ടി ഇതുവരെ എത്തീട്ടുമില്ല ഡ്രൈവറെ വിളിച്ചിട്ട് ഫോണെടുക്കുന്നില്ല ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് വിളിച്ചിട്ടാണ് കിട്ടിയത് എന്താ സംഭവം എന്താ കാര്യം എന്താണ് ഡ്രൈവറെന്താണ് കോളെടുക്കാത്തത് വഴിലെവിടേങ്കിലും കുടുങ്ങി കിടക്കുവാണോ അതിൻ്റെ കാര്യങ്ങള് വല്ലതും അറിയുമോ ഇനി അയാള് എത്ര മണിക്കാണ് എത്തുക ഇപ്പ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയാൻ വേണ്ടീട്ടാണ് വേഗമൊന്ന് വിളിച്ചിട്ട് ആ ഡ്രൈവറെ വിളിച്ചിട്ട് വരാൻ പറയണം